എനിക്ക് ഒരു പാലക്കാട് ഉള്ളിലേയ്ക്ക് പോയിട്ട് നല്ല ഒരു സ്ഥലത്തില് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഇരുന്നോട്ടെ ഒര് വീട് അങ്ങോട്ട് വേണം എന്താണ് ആ പാലക്കാട് ടൗൺ ഒരു രണ്ട് കിലോമീറ്റർ റേഡിയസ് അതില് അധികം പോകണ്ട അതെ പിന്നെ അടുത്ത് പെട്രോൾ പമ്പ് കഞ്ചിക്കോട് മതി അത് വേണ്ട വേണ്ട കഞ്ചിക്കോട് ആ ഏരിയ ഇല്ലെ പൊല്യൂഷൻ പക്ഷെ സൗകര്യങ്ങളും പമ്പും ഹൈവെ ഒക്കെ അല്ലെ തൊട്ടടുത്ത് ഒറ്റപ്പാലം വേണ്ട ആ ഒലവക്കോട് നോക്കുന്നതാ നല്ലത് അത് രണ്ട് നില കേട്ടോ ഏഹ് ഫ്രണ്ട് ആ ഞാൻ എന്തായാലും ഇത് പറയാം ഒര് കാർ പോർച്ച് ഏഹ് പിന്നെ കയറി ചെല്ലുമ്പം ഫ്രണ്ട് ഒരു എന്താ പറയുക റൂം സ്പേസ് വേണം കുറച്ച് ആ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് പോലെത്തന്നെ സിറ്റ് ഔട്ട് പോലെ സിറ്റ് ഔട്ട്തന്നെ പേര് കിട്ടാഞ്ഞിട്ടാണ് സിറ്റ് ഔട്ട് പിന്നെ കയറി ചെന്നാൽ ഫസ്റ്റ് ഒരു ഹോള് ഏഹ് ഹോള് പിന്നെ ആ ചുവട്ടിലത്തെ ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂം ഒര് കിച്ചൺ പിന്നെ ഒര് സ്റ്റോർ റൂം പിന്നെ രണ്ട് റൂമില് അറ്റാച്ച്ഡ് ബാത്റൂം വേണം ആ പിന്നെ മുകളിൽ വന്നിട്ട് രണ്ട് റൂം ആ പിന്നെ മുകളിൽ ഒരു ബാൽക്കണി പോലെ മീൻസ് കുറച്ച് സ്പേസ് വേണം അത് നമ്മൾക്കൊന്ന് മൈൻഡ് ഒക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ്

ആ കുഴപ്പം ഇല്ല ആയിരത്തെണ്ണൂറ് ഇരുന്നോട്ടെ അത് സാരമില്ല എൻ്റ കയ്യിൽ ഇപ്പോൾ ഒരു ഫോർട്ടി ലാക്സ് ആണ് ഇപ്പം ഉള്ളത്

ഓക്കെ ഓക്കെ ആ ഹിസ്റ്ററി ഏങ്ങനെയാണ് ആരേയും മരിച്ച വീട് അങ്ങനെ എന്തെങ്കിലും ആണോ

ഓക്കെ അപ്പോഴേക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട്

ആ കുറച്ച് ഉള്ളതല്ലെ ആ മൂന്നാല് വർഷം ആയിയല്ലെ ആ ആ ഓക്കെ ഓക്കെ വീടിൻ്റെകത്ത് സ്ഥലം ഉണ്ടാകുമോ കുറച്ച് വീടിന് ചുറ്റും ഇതില് ചക്കയോ പ്ലാവോ അങ്ങനെ എന്തെങ്കിലും

ആ തോട്ടം

ഓ ഓക്കെ ഓക്കെ ഓക്കെ

അത്രയ്ക്ക് ഉള്ളത് ഉണ്ട് ഇല്ലെ ഓ അപ്പം ഒന്നും നോക്കേണ്ട നമ്മൾക്ക് പൂശാം ഞാൻ ഇപ്പം എന്തായാലും ഈ ഒരാഴ്ച്ച ലീവ് ഉണ്ടാവും നോക്കട്ടെ ലീവ് ഉണ്ടാവും ഒര് രണ്ട് ദിവസം ലീവ് ഉണ്ടാവും അപ്പം ഞാൻ അങ്ങോട്ട് നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാം അപ്പം വീടും സ്ഥലവും ഒക്കെ കണ്ടിട്ട് നോക്കിയിട്ട് നമ്മൾക്ക് എന്താണെന്ന് വച്ചാൽ എല്ലാം ചെയ്യാം അപ്പം ഓക്കെ നമുക്ക് കാണാം